ഞാന് സ്വാന്തമായിട്ട് പാചകം ചെയ്യുകയാണെങ്കില് എന്തെങ്കിലും ഡൗട്ട്കള് വരികയാണെങ്കില് അമ്മയെ അമ്മേനെയാണ് വിളിക്കാറ് അമ്മ പറഞ്ഞ് തരാറുണ്ട് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അമ്മയൊ അമ്മമാരോടാണല്ലോ ചോദിക്കുക അപ്പോൾ അമ്മയാണ് പറഞ്ഞ് തരിക പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ഭക്ഷണം നന്നാകുമോ അതുപോ ചേരുവകളൊക്കെ ഒരു പൊ ആവശ്യത്തിനായിരിക്കുമോ ഉണ്ടാവുക അല്ലെങ്കില് എന്തേലും കുറഞ്ഞ് പോയോ കൂടിപ്പോയോ എന്നുള്ളതൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവും എന്നാലും മറ്റുളവരിത് കഴിച്ച് നല്ലത് അഭിപ്രായം പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അപ്പം എൻ്റെ അനുഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭക്ഷണം കഴിച്ച് എല്ലാവരും നല്ലത് പറയുമ്പോൾ നല്ലൊരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക നമ്മള് യുട്യൂബിനോടും യുട്യൂബ് നോക്കിയിട്ടും ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് പക്ഷെ കൂടുതലായിട്ടും അമ്മ എന്തേലും സംശയം വരുമ്പോ അമ്മയോടാണ് പെട്ടെന്ന് വിളിച്ച് ചോദിക്കുക അതെന്താണ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ